ആ എന്ന ചേച്ചി വിളിച്ചത് ആ ആ

എന്നാൽ നമ്മൾക്ക് അത് ഒരെണ്ണം തുടങ്ങാം ചേച്ചി അതെന്താണ് അത് അങ്ങനെ കിടക്കുവാണ് ഇപ്പം ഒന്ന് പുതുക്കിയാൽ കൊള്ളാമെന്നുണ്ട് ഒന്ന് പുതുക്കിയാൽ കൊള്ളാമെന്നുണ്ട് ആ ആ അതെ അതെ ആ ആ എന്നാൽ ലാപ്സായി പോയത് നമ്മൾക്ക് ഒരെണ്ണം പുതുക്കാം ആ ഏ ആ ആ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ അതെ അതെ എന്നാൽ അതിലെ ഒരെണ്ണം നമക്ക് എടുക്കാം നാളെ ചേച്ചി വരൂ എന്നാൽ ആ ആ ആ നമ്മൾക്കൊന്ന് നാളെ ചേച്ചി വരുമ്പം എന്നൊന്ന് വച്ചാൽ ഒരെണ്ണം എടുക്കാം ആ ആ എന്നാൽ നമുക്ക് ഹെൽത്തിൻ്റെ ഒരെണ്ണം നാളെ ചേച്ചി വരുമ്പം എന്നാൽ എടുക്കാം ആ ശരി ആ ശരി ചേച്ചി ഓക്കേ